ഹലോ ആ ട്രാൻസ്പ്പോർട്ട് ഏജൻസിയല്ലെ അതെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണത് ഞങ്ങൾക്കൊരു വണ്ടി വേണമായിരുന്നു ഒരു കാർ റെൻറ്റിന് അതായത് ഞങ്ങളൊരു അഞ്ച് പേരാണ് ഞങ്ങൾക്ക് പോകേണ്ടത് നെക്സ്റ്റ് മന്ത് റ്റ്വൻടീ ഇരുപത്തെട്ടാം തീയ്യതി ഞങ്ങൾക്കൊരു ഇവിടെയാണ് കാഷ്മീരാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങളൊരു അഞ്ച് പേരുണ്ട് ഞങ്ങക്കതിനനുസരിച്ചുള്ള വണ്ടി കിട്ടണം ഓക്കെ അപ്പോൾ അതെ അഞ്ചു പേരാണ് ഇരുപത്തെട്ടാം തിയതി രാത്രി പോയിട്ട് ഒരു പത്തു ദിവസം അതത് പിറ്റത്തെ മാസം ഒരെട്ടാന്തി തിരിച്ചു വരാനാണ് ഞങ്ങളുദ്ദേശിക്കണേ അപ്പോൾ ഞങ്ങക്കതിനനുസരിച്ചുള്ള റെ കാറിൻ്റെ വാടകയെത്രയാണെന്ന് ഞങ്ങൾക്കറിയുകയും വേണം അതെ അതെ അതെ നമുക്കെങ്ങനെയാണ് അത് ഇപ്പോൾത്തന്നെ ബുക്ക് ചെയ്യണോ അതോ എങ്ങനെയാണ് അവിടുത്തെ അതെ ഇപ്പോൾത്തന്നെ ബുക്ക് ചെയ്യണം ഓക്കെ അവിടെ വേണമെങ്കിൽ കൂടുതലുണ്ടോ ഓക്കെ അപ്പോൾ നമുക്കെങ്ങനെയാണ് ഞങ്ങളവിടെ വന്നു ബുക്ക് ചെയ്യണോ അതോ ഇവിടെ നിന്ന് ഫോൺ ചെയ്താൽ നിങ്ങൾ ബുക്കിങ് എടുക്കുമോ എടുക്കും എന്നാൽ പിന്നെ അടുത്ത ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾക്ക് അടുത്ത മാസം ഇരുപത്തേഴാന്തി ഒരു രാത്രി ഒരു ആറ് മണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളഞ്ചു പേരുണ്ട് അപ്പോൾ നമുക്കവിടെയെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യും അതിന് അപ്പം നിങ്ങൾ കാറവിടെ പാർക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്കിരിക്കാം അതുപോലെതന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പോകാനുണ്ടായിരിക്കും അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമല്ലോല്ലെ കൊണ്ടുപോകും അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് റെൻറ്റ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ എത്ര രൂപയാണ് നമ്മളുദ്ദേശിക്കുന്നത് പതിനായിരം ഓക്കെ ഇതിൽനിന്ന് കുറയുമോ ഇല്ല്യ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടു തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കിതിൽ പോകും ഓക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോകും റോഡ് മാർഗ്ഗമാണ് ഓക്കെ ഓക്കെ തണവായത് കൊണ്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത് എല്ലാ സൗകര്യമുണ്ടായിരിക്കും ഓക്കെ ഓക്കെ രാത്രി ആ രാത്രി ഒരു വൈകിയിട്ടൊരു നാ അഞ്ച് മണിയോട് കൂടി പോകാണെങ്കിൽ നമുക്ക് രാവിലെ ഉച്ചയോടു കൂടി അവിടെയെത്താമെല്ലാവർക്കും അല്ലെ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നമുക്കധികം ദൂരമായതുകൊണ്ടാണ് ഞാനീ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്കും കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയ്യതി രാത്രിക്ക് ഞങ്ങളഞ്ചു പേരടങ്ങിയ വണ്ടി ബുക്ക് ചെയ്യുകയാണ് അതേയതെ അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നു കേട്ടോ അടുത്ത മാസം അപ്പോൾ അത് ബുക്ക് ചെയ്തോളൂ ഓക്കെ ബുക്ക് ചെയ്തു ഓക്കെ താങ്ക് യൂ അപ്പോൾ ഞങ്ങളവിടെ ഇനി ഞാൻ തലേ ദിവസം വിളിക്കാം അപ്പം ഞങ്ങൾക്ക് ആ സ അതെ അതെ അതെ അപ്പോൾ രാത്രി ഞങ്ങൾ വിളിക്കാണ്ട് ഓക്കെ താങ്ക് യൂ